ദിവസം മുഴുവൻ വെള്ളം പറഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റാൽ വെള്ളമില്ലാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ വെള്ളം നമുക്ക് പല്ല് തേക്കണങ്കിലോ മുഖം കഴുകണമെങ്കിലോ കുളിക്കണങ്കിൽ ഒക്കെ വെള്ളം വേണം ലാവറ്ററി പോകണമെങ്കിൽ വെള്ളം വേണം വസ്ത്രങ്ങൾ തിരുമണമെങ്കിൽ വെള്ളം വേണം അതുപോലെതന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് കുടിക്കുന്നതിന് എല്ലാം വെള്ളം വേണം വെള്ളമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല മനുഷ്യൻറെ മെയിൻ സാധനമാണ് വെള്ളം അതിലുപരി ഈ വെള്ളത്തിൽ കൂടെയാണ് നമുക്ക് ജീവവായു തന്നെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വെള്ളം ആണ് മുകളിൽ പോയി മഴയായിട്ട് വരുന്നത് എന്നത് വേറൊരു കാര്യം അങ്ങനെ വെള്ളം ആവശ്യമില്ലാത്ത ഒരു കാ മേഖലയും ഇല്ല വെള്ളം എല്ലായിടത്തും ആവശ്യമാണ് ഇഷ്ട ഇഷ്ട്ട പ്രകാരം ധാരാളം വേണ്ടതിലധികം ആവശ്യങ്ങളാണ് വെള്ളത്തിനെ കൊണ്ടുള്ളത് സത്യം പറഞ്ഞാൽ അത് നമ്മള് ഓരോ ദിവസവും വേണ്ടാത്ത അത്ര ജലമാണ് ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും അത്യാവശ്യമാണ് അവർക്കൊക്കെയും എന്ത് ചെയ്യണമെങ്കിലും വെള്ളം വേണം